എനിക്ക് യേശുദാസ് സാറിൻ്റെ പാട്ട് എല്ലാം തന്നെ ഇഷ്ടമാണ് കാരണം അദ്ദേഹത്തിൻ്റെ വോയ്സ് ആണെങ്കിലും വളരെ മനോഹരാണ് എനിക്ക് ഭ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും അദേഹത്തിൻ്റെ പാട്ടാണ് കേൾക്കല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂടാതെ അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഇടക്ക് ഇടക്ക് ഇങ്ങനെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കുമായിരുന്നു അതിപ്പം ദൈവത്തിൻ്റെ ആണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹം മനോഹരായിട്ടു തന്നെ പാടിയിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറയുന്നത് ഹരിവരാസനം എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ കേട്ടു കൊണ്ട് ഇരിക്കാൻ തോന്നും ഞാൻ ഒരു ദിവസം രണ്ട് തവണ എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കേൾക്കലുണ്ട് കാരണം എനിക്ക് അത്രക്ക് ഇഷ്ടമാണ് ഞാൻ സോങ്സ് ഒക്കെ പൊതുവെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആകുമ്പോൾ പ്രത്യേകിച്ച് എനിക്കൊരു ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ സോങ്സ് എല്ലാം തന്നെ കേൾക്കുന്നുണ്ട് അപ്പം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാൻ എനിക്ക് എനിക്ക് അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ ഇതാണ് ഭയങ്കര ഇഷ്ടമാണ് കാരണം അദ്ദേഹത്തിൻ്റെ വോയിസ് ആണെങ്കിലും പാട്ടുകളാണെങ്കിലും അത് വ വളരെ അമേസിങ് ആയിട്ടാണ് അദ്ദേഹം പാടിയിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ സോങ്സൊക്കെ പിന്നെ എല്ലാ സോങ്സും ഒരെണ്ണം പോലും വിടാതെ എല്ലാ സോങ്സും കേൾക്കലുണ്ട് അദ്ദേഹത്തിൻ്റെ